എനിക്ക് മൊബൈലിലും ലാപ്ടോപ്പിലും ടൈപ്പ് ചെയ്യാന് തന്നെയാണ് ഇഷ്ടം കാരണം ഇന്നത്തെ ഒരു ജനറേഷനില് ജീവിക്കുന്നത് കൊണ്ടായിരിക്കാം ഇന്നിപ്പോൾ അപ്പോൾ കത്തെഴുതണം പണ്ടൊക്കെ കത്തെഴുതുന്ന കാലായിരുന്നു ഇപ്പോൾ ആരെങ്കിലും കത്തെഴുതുന്നുണ്ടോ എല്ലാവരും വാട്ട്സ്അപ് വാട്ട്സപ്പും മെസഞ്ചറും കാര്യങ്ങളുമൊക്കെ അല്ലേ യൂസ് ചെയ്യുന്നത് നമ്മള് പറയേണ്ട കാര്യങ്ങള് അപ്പപ്പോൾ കിട്ടുന്നുണ്ട് ഇപ്പോൾ നമുക്ക് അത് കൂടുതലും ചാറ്റ് ചെയ്യുകയല്ലേ എല്ലാവരോടും നമ്മളിപ്പോൾ കത്ത് ഒക്കെ എഴുതാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാഴ്ച രണ്ടാഴ്ച അതിനു റീപ്ലേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യണം ഇപ്പോൾ ദാ സെക്കന്റിനുള്ളില് നമുക്ക് റിപ്ലെ കിട്ടുന്നു ഇപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ ഒരു ജനറേഷൻ പഴയ കാലത്ത് നമ്മള് ചിന്തിക്കും പഴയകാലം ഉള്ളവർ എങ്ങനെയാണീ കത്ത് പേനകളിലൂടെയും പേപ്പറിലൂടെയും ജീവിച്ചതെന്നു നമ്മൾ ചിന്തിച്ചു പോകും കാരണം ഒരു ഒരു കത്തെഴുതി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് തിരിച്ചു അതിന്റെ മറുപടി കിട്ടണമെന്നുണ്ടെങ്കില് ഒരു മാസവും രണ്ടു മാസവും ഒക്കെ എടുക്കുന്ന ഒരു കാലം നമ്മളെ സംബന്ധിച്ച് ചിന്തിക്കാന് പറ്റുന്നതിലപ്പുറമാണ് അപ്പോൾ എഴുത്തുകൾ ഇന്ന് വളരെ കുറഞ്ഞു ഇപ്പം നോവലും കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളിപ്പോൾ എല്ലാം ആപ്പുകളിലൂടെയാണ് വായനയും കാര്യങ്ങളുമൊക്കെ നമ്മൾ ബുക്ക് എടുത്തു വായിക്കുന്നില്ലല്ലോ ഒക്കെ സോഷ്യല് മീഡിയകള് വഴിയല്ലേ നമ്മള് എല്ലാ കാര്യങ്ങളും അറിയുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ച് എന്തായാലും ഒരു ഒരു ടൈപ്പിംഗ് ലോകത്തേക്ക് എത്തി എന്നു വേണമെങ്കില് പറയാന് പറ്റും കാരണം ഒരു പെന്നും പേപ്പറിനും ആവശ്യം ഒന്നും ഇന്നിപ്പം തീരെ വരുന്നില്ല എല്ലാ കാര്യങ്ങളും സോഷ്യല് മീഡിയ വഴി അതായത് അപ്പോൾ നമ്മൾ ചാറ്റ് ചെയ്തിട്ട് തന്നെയാണ് കൂടുതല് കാര്യങ്ങളും നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയര് ചെയ്യുന്നത് അപ്പോൾ എപ്പോൾ പോ പറയുകയാണെങ്കില് തന്നെ എഴുതാനൊന്നും ആരും ഇഷ്ടപ്പെടുന്നില്ല കാരണം ഇങ്ങനെ തന്നെ സോഷ്യല് മീഡിയ ഇനിയിപ്പതിനെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചു സമൂഹത്തില് കുറച്ചു പേർ അതിലോട്ടു മാത്രമായി ഒതുങ്ങി കൂടുന്നവരും കുറച്ചു പേർ ഇതിലോട്ടു മാറി വരുന്നവരുന്നുണ്ട്